ഞാൻ എൻറ്റൊരു സ്വന്തം ബിസിനസ്സെന്നു പറഞ്ഞാൽ ഞാൻ ചെറിയ കുട്ടികളുടെ തലയിൽ വെക്കുന്ന ഹെയർ ബോസ് ഹെയർ ബാൻഡ്സ് ഹെയർ ഏക്സസറീസൊക്കെ ഉണ്ടാക്കുന്ന രീതി ചെറിയ രീതിയിലൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനത് ഉണ്ടാക്കാനുണ്ടായൊരു സാഹചര്യമെന്നു പറയുന്നത് എൻ്റെ ഒരു ഫങ്ഷൻ എൻറ്റേ മോളുടെ ഡ്രസ്സിനു മാച്ചായിട്ടൊരു ബോ ഞാനുണ്ടാക്കി അപ്പം അത് കണ്ടപ്പോൾ കുറച്ചാളുകൾ ചോദിച്ചു ഇതാരാണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇതെവിടുന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ തന്നെ സ്വയം ചെയ്തതാണെന്നു പറഞ്ഞപ്പം തന്നതാനെ ഉണ്ടാക്കിയതാണെന്നു പറഞ്ഞപ്പം അവർ എന്താ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമോയെന്നു ചോദിച്ചിട്ട് അങ്ങനെ ഒരാൾ എന്നോട് ഉൺ ഇത് ഉണ്ടാക്കി തരാമോയെന്നു ചോദിച്ചു ആ ഒരു സാഹചര്യത്തിൽ ഞാനതൊരു എനിക്കതൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് റെഡിയായിട്ട് ഞാനവർക്കത് അതുപോലൊരെണ്ണം ചെയ്തു എന്നിട്ട് ഞാൻ ഹാപ്പി കസ്റ്റമർ എന്നു പറഞ്ഞിട്ട് എൻ്റെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു ആ സ്റ്റാറ്റസ് കണ്ടിട്ട് ഒന്നു രണ്ട് പേര് കോണ്ടാക്റ്റ് ചെയ്തു നീ ഇതിനെ ഉണ്ടാക്കിയതാണല്ലോ ആണോ ആ കൊള്ളാമല്ലോ ആ സൂപ്പറാണല്ലോ നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്തു അപ്പം എനിക്കത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രചോദനമായി അപ്പം അങ്ങനെ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് ഓഡറും കൂടെ കിട്ടി ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഡർ കിട്ടാൻ കാരണമെന്നു ഫസ്റ്റ് ഓഡറല്ല രണ്ടാമത്തെ ഓഡർ കിട്ടാൻ കാരണമെന്നു പറഞ്ഞാൽ ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസിട്ടതാണ് അപ്പം എനിക്ക് മനസ്സിലായി അത് ഇതാളുകളിലേക്ക് കുറച്ച് നന്നായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ നല്ലൊരു ഉപാധിയാണെന്നെനിക്ക് തോന്നി അപ്പം ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തതെന്നു വെച്ചാൽ എന്താ ഉണ്ടാക്കിയ കുറച്ച് ഹെയർ ബോസ് ഞാൻ കുറച്ച് ഉണ്ടാക്കി എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ആദ്യമെ സ്റ്റാറ്റസിട്ടു പിന്നെ ഫേസ്ബുക്കിൽ സ്റ്റോറി ഇട്ടു പോസ്റ്റിട്ടു പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിട്ടു അപ്പം അങ്ങനെ ഒന്ന് രണ്ട് എൻക്വയറിയും കൂടി വന്നു അങ്ങനെ അവർ പറഞ്ഞറിഞ്ഞ് എനിക്ക് കുറേ കുറേ കൂടി കുറേ എൻക്വയറി വന്നു കുറേ ബിസിനസ്സെനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ വാട്സാപ്പ് സ്റ്റാറ്റസ് കണ്ട് സ്കൂളിൽ ടീച്ചർ ആനുവൽ ഡേക്ക് കുറച്ച് ബോസ് ഉണ്ടാക്കി കൊടുക്കാമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറേ ഹെയർ ബാൻറ്റുണ്ടാക്കി അങ്ങനെ എനിക്ക് എൻ്റെ ബിസിനസ്സ് വളർത്താൻ വേണ്ടി സഹായിച്ചത് ഉറപ്പായിട്ടും വാട്സപ്പ് സ്റ്റാറ്റസ് ഫേസ്ബുക്ക് സ്റ്റോറി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയൊക്കെയാണ് അപ്പം ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു പേജ് തുടങ്ങി ആ പേജ് കൂടി നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പം അത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ആ രീതിയിൽ എനിക്ക് കുറേയേറെ ഓഡറുകൾ കിട്ടുന്നുണ്ട് അപ്പം ഈ ഒരു വാർത്താമാധ്യമം അല്ലെങ്കിൽ ഇത് എൻ്റെ ബിസിനസ്സിനെ വളർത്താൻ വേണ്ടിയിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഈ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത് വാട്സപ്പ് കോണ്ടാക്ട് തന്നെയാണ് കാരണം എനിക്ക് എൻറ്റൊരു കോണ്ടാക്റ്റുള്ള എല്ലാവരും തന്നെ എൻ്റെ സ്റ്റാറ്റസ് സ് കാണുന്നുണ്ടായിരുന്നു അപ്പം ആ രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ ബിസിനസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്ക് തന്നെയൊരു മുന്നൂറിൽ കൂടുതൽ കസ്റ്റമേഴ്സുണ്ടായിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് എൻക്വിയറീസ് വരാറുണ്ട് ഞാൻ എനിക്ക് പറ്റുന്നതു പോലെ ചെയ്തു കൊടുക്കാറുണ്ട് ഞാൻ ഇപ്പം ഈ ഒരു ഈ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ ഹെയർ ആക്സസ്സറീ ഞാൻ ചെറിയൊരു കോഴ്സ് പഠിച്ചു ആ രീതിയിലൊക്കെ എനിക്ക് നല്ല രീതിയിലൊരു ബിസിനസ്സ് ഇപ്പം എൻറ്റൊരു ലോങ് ടൈം ഗോളെന്നു പറയുന്നത് തന്നെ ഒരു ആന്ത്രപ്രണറാകുകയെന്നുള്ളതാണ് അപ്പം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഹെൽപ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഒരു വാട്സപ്പ് സ്റ്റാറ്റസിൽക്കൂടിയാണ് കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരറിഞ്ഞത് ഒരു ഒരാൾ അല്ലാതെ നമുക്കിപ്പം പണ്ടത്തെ പോലെ നമുക്ക് കത്തയക്കാനോ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത് ഇന്നത് ഞാൻ ഉണ്ടാക്കുന്നുണ്ടെന്നു പറഞ്ഞാലൊന്നും അതിൻറ്റൊരു എഫക്റ്റീവില്ല നമ്മൾ ഫോട്ടോ എടുത്തിട്ട് മറ്റുള്ളവരത് കാണുന്ന സമയത്താണ് കൂടുതലും അത് അത് കൂട്ടുകാർ നമുക്ക് വേണമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നാറ് അപ്പം എനിക്കത് കൂടുതലും നല്ല എഫക്റ്റീവായിട്ട് തോന്നി